ആ അതെ ആ ആ ആ റേച്ചലോ റേച്ചൽൻ്റെ ആരാണ് ആ ആ അവൾ പറഞ്ഞുകൊടുക്കുന്നത് ഒക്കെ മ്മ് പറഞ്ഞുകൊടുക്കുന്നത് ഒക്കെ അവൾ മ്മ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് കുഴപ്പം ഇല്ല ഇവിടെ ആന്നേലും ഇല്ല

ഇല്ല ഇല്ല ഇവിടെ അവൾ അങ്ങനെ കുരുത്തക്കേടൊന്നും ഇല്ല അവൾ നല്ല കൊച്ചാണ് പറഞ്ഞുകൊടുക്കുന്നത് ഒക്കെ പെട്ടെന്ന് മ്മ് ഇതാക്കുന്നുണ്ട്

ആ കലാപരമായിട്ട് വൾക്ക് ആ ഒരു കഴിവുണ്ട് പിന്നെ കുറച്ച് പറഞ്ഞുംകൂടെ കൊടുത്ത് കഴിഞ്ഞാൽ അവൾ കൂടുതലായിട്ട് വളർന്ന് വരാനായിട്ട് അവൾക്ക് പറ്റും അവൾ പറഞ്ഞ് പറഞ്ഞുകൊടുക്കുന്നത് ഒക്കെ ആണെങ്കിലും പെട്ടെന്ന് പഠിച്ച് എടുക്കുന്ന് ഒക്കെ ഉണ്ട് നമുക്ക് ഇവിടെ ഒരു വർഷം ആറ് മാസം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം അവളുടെ ഒരു കഴിവ് വെച്ച് ആ ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒമ്പത് മാസം മ്മ് കൊണ്ടൊക്കെ പഠിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ

എന്നുവെച്ചാൽ നിലവിൽ ഇപ്പം അവൾ കുഞ്ഞ് കുട്ടിയല്ലേ അപ്പോൾ അവൾക്ക് മാസം ഒരു അഞ്ഞൂറ് രൂപ വെച്ച് വേണ്ട വേണ്ട നമ്മൾ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ അവർക്ക് പ്രത്യേകമായിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് പ്രത്യേകരമായിട്ട് ഫീസ് ഒന്നും വേണ്ട അതിന് മ്മ് അവൾക്ക് ആ പ്രതീഷയുണ്ട് ആ മ്മ് ശരി ആ